എനിക്ക് കിട്ടിയതിൽ ഏറ്റവും വിലപിടിപ്പുള്ളതും നല്ലതും പോസിറ്റീവ് എക്സ്പീരിയൻസ് നൽകിയതുമായ ഒന്നാണ് ഫോണെന്നു പറയുന്നത് ഫോണിനൊപ്പം നല്ലൊരു ചാർജറും ഹെഡ്സെറ്റും പവർബാങ്കും ലഭിച്ചെന്നത് വളരെ ഉപകാരപ്രദമായ ഒന്നാണ് എനിക്ക് ലഭിച്ചതിൽ വച്ച് ഏറ്റവും ഉപകാരപ്രദവും ഗുണമേന്മയുള്ളതുമായ ഒന്നാണ് ഫോൺ എന്നു പറയുന്നത് ഫോണിലൂടെ പെട്ടെന്ന് ആശയവിനിമയം നടത്താനും മറ്റുള്ളവരുമായി ബന്ധപ്പെടാനും എല്ലാം സാധിക്കുന്നു ലോകത്തിൻ്റെ വിവിധ കോണിലുള്ളവരെ പെട്ടെന്ന് കോൺടാക്ട് ചെയ്യാനും അവരുമായിട്ട് സംവദിക്കാനും എല്ലാം ഫോണിലൂടെ സാധിക്കുന്നു അതുപോലെ ഞൊടിയിടയിൽ എല്ലാ വിവരങ്ങളും അറിയാനും ഒരു കൈവിരൽ തുമ്പിൽ നിന്ന് വിവിധ വിജ്ഞാനം നമുക്ക് ലഭിക്കുവാനുമെല്ലാം ഫോണിലൂടെ സാധിക്കുന്നു ഫോൺ എന്നു പറയുന്നത് ഏറ്റവും ആവശ്യവും ഉപകാരപ്രദവുമായ ഒന്നാണ് വാർത്താവിനിമയത്തിന് ഉപയോഗിക്കാനും എല്ലാം ഫോൺ നല്ല രീതിയിൽ ഉപയോഗപ്രദമാണ്